നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നമുക്ക് സ്വന്തം ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റും അതിനിപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഗസ്റ്റുകൾ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ തന്നെ അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ഫൂഡ് ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ മീൻസ് അവർ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ താൽപ്പര്യത്തിന് മാത്രമേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ എന്നു വെച്ചാൽ നമ്മളിതിപ്പോൾ അവർ അവർക്കിപ്പോൾ എന്ത് കറിയാണോ വേണ്ടത് അവർക്കിപ്പോൾ എന്ത് ഫുഡ് ആണോ നമ്മൾ അങ്ങോട്ട് ചോദിക്കും അപ്പോൾ അവർ പറയുന്നതിന് മുന്നേ അത്യാവശ്യം നമ്മളെക്കൊണ്ട് അറിയുന്നത് പോലെ ഒക്കെ നമ്മൾ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാണ് ചെയ്യാറ് ഇപ്പം എന്താണ് പറയുക പുറത്തുനിന്ന് വരുന്ന ഇപ്പം എന്താണ് പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാണ്ട് ഒരാൾ കയറി വരുവാണെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊടുക്കും നമ്മൾ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ റിലേറ്റിവ്സും കുടുംബക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം മാത്രം നമ്മൾ ഫുഡ് ഉണ്ടാക്കുക ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ മാത്രം എന്താണ് എന്താണ് അവരുടെ താൽപര്യം മുൻനിർത്തി തന്നെ നമ്മുടെ ബന്ധുക്കാരുടെ നമ്മുടെ വീട്ടിൽ ആരാണോ വരുന്നത് അവരുടെ താൽപര്യം മുൻനിർത്തിയാണ് നമ്മൾ ഫുഡ് എപ്പോളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറ്